ഹലോ ആ ആ പറയുന്നത് കേള്ക്കാമല്ലോ അല്ലേ ഞാൻ ബാബു സാറാണ് വിളിക്കുന്നത് അ ആ ഇത് മാത്യൂ ചേട്ടനല്ലേ നമ്മുടെ ഇലക്ട്രീഷ്യന് ആ അതെ നമുക്ക് ഒരു വര്ക്കൊണ്ടായിരുന്നല്ലോ നമ്മുടെ വീടിന്റെ പുതുതായിട്ടുള്ളൊരു എസ്റ്റെന്ഷനെടുത്ത ഭാഗത്തെ ഒരു ആ അല്പ്പം ചില പണികൾ കൂടി ഉണ്ടായിരുന്നു അത് ആ ഒരു രണ്ട് രണ്ട് മുറി രണ്ട് മുറി ആ പുതിയ പോഷനാണ് ര ആ പുതിയ പോഷനാണ് രണ്ട് മുറി ഒരു ബാത്ത് റൂം നിലവിൽ കണക്ഷനൊണ്ട് അപ്പം നല്ല രീതിയിൽ ഉള്ള കണക്ഷനീന്നൊരല്പ്പോം കൂടി കൂട്ടിപ്പിടിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഒരു മുറി ഒരു മുറി ഏ സി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നമുക്ക് പിന്നെ ബാക്കി അതിനകത്ത് ലൈറ്റിന്റെ സംവിധാനങ്ങൾ ഫാന് ബാത്ത് റൂമിൽ അത് അത്യാവശ്യം പഴയതല്ല വേണ്ട കാര്യങ്ങൾ യൂറോപ്യന് ക്ലോസറ്റും മറ്റേ ചൂടുവെള്ളം കിട്ടാനുള്ള സംവിധാനോം ഒക്കെ ഉള്ള രണ്ട് കൂളര് സഞ്ചാരം വേണം അപ്പം അതിന്റെ സംഭവം അ അ ഇല്ലില്ലാ എസ്റ്റിമേറ്റൊന്നും ആക്കിയിട്ടില്ല അത് ഞാൻ അത് ഞാൻ അതാദ്യമായിട്ടൊന്ന് വിളിക്കാണ് ഇതിനെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് അതിനാകുമ്പം വിളിക്കാമല്ലോ സാധനങ്ങളൊക്കെ എടുക്കണേല് നമുക്ക് അങ്ങനെ ആണതിന്റെ ഒരു ഏകദേശം എമൗണ്ട് വരുന്നത് എന്തൊക്കെ ചെയ്യാന് പറ്റും ഏ കാര്യങ്ങൾ അതെല്ലാം അറിഞ്ഞിട്ട് വേണം നമുക്ക് ഇപ്പം കോണ്ക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ വയറിങ്ങിന് പരിപാടികളൊക്കെ നടക്കണമല്ലോ അത്യാവശ്യം ചില ഓസെക്കെ ഇട്ടതിന്റെ കണക്ഷന് കൊടുക്കാന് സംവിധാനങ്ങൾ ചെയ്യണ്ടേ അതുകൊണ്ട് ഇതിന് മുമ്പ് പിന്നെ ബാക്കി ഒരിച്ചീ ആ കണ്സീലിങ്ങാണ് വേണ്ടത് കണ്സീലിങ്ങായിട്ട് വയറിങ് വേണം അ ആ ആക്കാന് പറ്റുകയുള്ളൂ ആ അത് ആ ആ ആ അപ്പം ഈ കണക്ഷനൊള്ളതാകുമ്പം നമുക്ക് അതിന്റെതായിട്ട് കുറവ് വരില്ലേ ഒരു രണ്ട് മുറീന്ന് പറഞ്ഞാൽ ഏറെ കുറെ സാമാന്യം വലിയ രണ്ട് ബെഡ് റൂം ഉള്ളത് ഉള്ളൂ ആ അ ആ ആ അതാ അത് ആ കാര്യമില്ല അതില് ഇതേ സി പിടിപ്പിച്ചാൽ നമുക്ക് അതിനകത്ത് അതാത് ഫാനും കൂടി വേണം ആ ആ അത് വേണം ആ ചെയ്യാന് ആ ആ പലതും വ്യാജമല്ലേ നമ്മൾ മരു ആ ആ ഉവ്വ ഉവ്വ അവർ പിടിച്ച് കഴിഞ്ഞാൽ അന്നേരം വിഷയമല്ലേ ആ ഇവിടെ ഇരിപ്പില്ല ആ ആ ആ ആ ആ ഉവ്വാവ്വ ആ ആ ആ ആ ഉവ്വാവ്വ ആ ഇല്ലെങ്കില് മറ്റെല്ലാ വിധത്തിലും നമ്മൾ സോളാറ് മാത്രം ആയിട്ടുള്ളതാണോ അതെയോ നമ്മൾ അല്ലാത്ത ഇതാണോ നല്ലത് നമുക്ക് കറണ്ടിന്റെ തന്നെ ഹീറ്ററ് വെക്കുവാണോ നല്ലത് ഇത് സോളാര് അത് അത് നമ്മൾ തന്നെ ചെയ്യുമോ അപ്പോൾ സോളാറ് തന്നെ സോളാറാകുമ്പം ചെയ്യാം നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലെ ഹാ ആ ആ വെയ്ക്കാന് പറ്റും അപ്പം ഒറ്റ ബാത്ത് റൂമേ ഉള്ളൂ അതിന് വേണ്ടി അപ്പം അപ്പം അത് അപ്പം അങ്ങനെ സോളാറ് വെച്ചാൽ പഴയ ബാത്ത് റൂമ്കളിലേക്ക് നമുക്ക് അതിനകത്തെന്ന് കണക്ഷനെടുക്കാന് പറ്റുമല്ലോ ആ ഹാ ഹാ ഓ ആ ഉവ്വ ഉവ്വ ആ ആ പ്രത്യേകിച്ച് കൊടുക്കണം ഓ അങ്ങനെ അങ്ങനെ ഒരു വിഷയമുണ്ട് അപ്പം നമുക്ക് അത് ഈ പ്ലമി പ്ലമ്പിങ്ങിന്റെത് മൊത്തത്തിൽ അന്നേരം മാറ്റി പിടിപ്പിക്കേണ്ടി വരും ബാത്ത് റൂമിലേക്കുള്ള ആ ഉവ്വവവ്വ ചൂടുവെള്ളം ആ അത് മതി ആ ആ ആ ആ ആ ആ ആ ആ ഉവ്വ് ആ ആ ആ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അടുത്ത ആഴ്ചയോടു കൂടി ആയാല് ബാക്കി ഇപ്പം അല്മുറിക്ക് തട്ടടിക്കണ്ടേ ഒരു തട്ടടിക്കുമ്പം തിരക്കുണ്ടോ ശരി എന്നാൽ ആ ആ അപ്പം ഞാൻ അല്ല ഈട്ടാ ആ ആ ആ ആ അപ്പം ആ ഉവ്വവ്വ അപ്പം തട്ടടിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അതിന്റെ മോളിക്കൂടെയൊന്ന് ആ കോണ്ക്രീറ്റിന്റ്റുള്ളിക്കൂടെ പോകാനുള്ള ഓസൊന്ന് ആദ്യം ഇട്ട് തന്നാൽ മതി ബാക്കി ഞാന് പിന്നെ നീട്ടി ഫൗണ്ടേഷനിട്ട് നോക്കാം ഏ ആ ഉവ്വ് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആ ആ ആ ആ ആ ഉവ്വവ്വ ആ ആ ആ ആ ആ ആ ആ ആ ഉവ്വാവ്വ ആ ആ ആ ആ ഓക്കെ ഓക്കെ ആ അപ്പം കുഴപ്പമില്ല നമുക്ക് ഏ അപ്പം എന്നാണേലും പണി ഏറ്റേക്കണം ഏ ആ ആ ആ ആ ഓക്കെ എങ്കിൽ ആ ആ ആ ആ ആ ഓക്കെ ആയിക്കോട്ടെ ഓക്കെ